മലയാളം പഠിച്ചതെങ്ങനെയാണെന്നു ചോദിച്ചു കഴിഞ്ഞാൽ നമ്മൾ ജനിച്ചു വളർന്നത് കേരളത്തിൽ പാലക്കാട് ജില്ലയിലാണ് അപ്പോൾ ചെറുപ്പം തൊട്ടു നമ്മൾ കേട്ടു വളർന്ന ഭാഷ മലയാളം തന്നെയാണ് അമ്മയും അച്ഛനും ബന്ധുക്കളും എല്ലാവരും സംസാരിക്കുന്ന ഭാഷ മലയാളം തന്നെയാണ് പിന്നെ നമുക്ക് ചെറുപ്പത്തിൽ അവർ പറഞ്ഞു പഠിപ്പിക്കുന്ന ഭാഷയും മലയാളമാണ് ആദ്യം നമ്മൾ കുറേ കേട്ടു കേട്ട് പഠിയ്ക്കും പിന്നെ അക്ഷരങ്ങളും കാര്യങ്ങളൊക്കെ എഴുതി അങ്ങനത്തെ അമ്മയല്ലെങ്കിൽ സ്കൂളിൽ പോയി കഴിഞ്ഞാൽ അവർ പഠിപ്പിയ്ക്കും അല്ലെങ്കിൽ വീട്ടിൽ അമ്മ ആരെങ്കിലും ഒക്കെ പഠിപ്പിയ്ക്കും പിന്നെ മലയാള ഭാഷ ആ അങ്ങനെയൊക്കെ തന്നെയാണ് മൈയിൻ ആയിട്ട് നമ്മുടെ റിലേറ്റീവ്സ് ആയിട്ടുള്ള സംസാരവും കാര്യങ്ങളും എല്ലാം കൂടിയാകുമ്പോൾ നമുക്ക് യൂഷ്വലി സാധാരണ എങ്ങനെയാണ് മാതൃഭാഷ പഠിക്കുന്നത് അതുപോലെയാണ് ഞാനും പഠിച്ചത് പിന്നെ മലയാള ഭാഷയായിട്ടുള്ള അനുഭവം എന്നു പറയുമ്പോൾ നമുക്ക് ഞാനൊരു മലയാളി ആയതു ആയതുകൊണ്ടു മാത്രമല്ല നമുക്ക് മലയാള ഭാഷ പഠിച്ചവർക്ക് വേറെ ഭാഷ പഠിക്കുന്ന പഠിക്കാൻ കുറച്ചും കൂടി എളുപ്പമാണ് ഇപ്പോൾ ഇംഗ്ലീഷ് ആയാലും തമിഴ് ആയാലും ബാക്കിയുള്ള ഭാഷകൾ നമുക്ക് കൃത്യമായിട്ടു പഠിയ്ക്കാൻ പറ്റുന്നുണ്ട് അല്ലെങ്കിൽ കുറച്ചും കൂടി അവരെക്കാട്ടിലും അവർ നമ്മുടെ ഭാഷ പഠിക്കുന്നതിനേക്കാട്ടിലും കുറച്ചും കൂടി എളുപ്പത്തിൽ നമുക്ക് പഠിക്കാൻ പറ്റും സമയം കുറച്ചു മതി പെട്ടെന്നു പഠിക്കാനും പറ്റും അങ്ങനെയുള്ള ഒരു നല്ല അനുഭവമാണ് എനിക്ക് മലയാള ഭാഷയെക്കുറിച്ചു പറയാനുള്ളത്